വിദ്യാഭ്യാസലോണെടുത്ത പലരേയും അറിയാം ഫ്രണ്ട്സിനെ നോക്കിക്കഴിഞ്ഞാലും റിലേറ്റീവ്സിനെ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് പേരുണ്ട് വിദ്യാഭ്യാസലോണെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നൊരു കാര്യമല്ല അതിന് പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളുണ്ട് പല പേപ്പേഴ്സ് രേഖകളൊക്കെ നമ്മൾ ചെന്ന് കറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കണം പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമായ പഠിക്കാൻ വളരെയധികം ഉപകാരപ്രദമായ കാര്യമാണ് പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്നെടുക്കാൻ പറ്റുന്നതും പിന്നീട് കഴിവുള്ളപ്പോൾ വിടാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസ ലോൺ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതലും പൈസ ഇല്ലാത്ത ഒരു കാര്യം വരുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ തള്ളിപ്പോവുകയും കുട്ടികൾ പഠിക്കാതെ ആവുന്ന അവസരങ്ങളും വരുന്നുണ്ട് അതിനോട് യോജിക്കുന്ന അല്ലെങ്കിലത് പ്രയോഗമായ കാര്യമാണ് വിദ്യാഭ്യാസ ലോൺ വളരെ നല്ല രീതിയിൽ ഉള്ളൊരു നിയമം ആണ് വിദ്യാഭ്യാസ ലോൺ സർക്കാർ നൽകുക എന്നുള്ളത് അതെല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട് എന്ന അറിവാണ് കൂടുതലായി കിട്ടുന്നത്